എൻ്റെ ഇവിടെ ചുറ്റുപാടിൽ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നത് നമ്മുടെ തേങ്ങ ഉണ്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൂടെയാണ് തേങ്ങ ഉണ്ട ഞാനവിടെ ആ ചേച്ചിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അഞ്ചെണ്ണം ഉണ്ടാകും രണ്ടെണ്ണമൊക്കെ എൻ്റെ വായിലോട്ട് പോകും ആ ഇഷ്ടം കൂടിയിട്ട് അവരും ആ ചേച്ചിയും ചേച്ചിയുടെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും കൂടെ തേങ്ങ ചിരവി വെള്ളപ്പാവൊക്കെ ആക്കിയിട്ട് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ തേങ്ങ ഉണ്ടയുടെ പരിപാടി അത് പുറം നാടുകളിലേക്ക് ആരെങ്കിലും ഗൾഫിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഓർഡറ് കൊടുക്കും നിങ്ങളെ എനിക്ക് ഇത്ര ഉണ്ട ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടയിലും കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ പപ്പട നിർമ്മാണം അതും ഈ പപ്പടം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി അതൊക്കെ എന്താണ് പറയണ്ടേ കണ്ടിരിക്കാൻ ഒരു രസമുള്ള കാര്യമാണ് അവർ ഇത്ര ക്ഷമയോടു കൂടിയിട്ട് ആ പപ്പടം ഒരേ സൈസിൽ പരത്തുന്നതും ഇപ്പം മെഷീനറീസ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഞങ്ങളെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ കൈക്കൊണ്ട് തന്നെയാണത് ഉരുട്ടുന്നതും പരത്തുന്നതും ഒക്കെ ചെയ്യുന്നത് ഇപ്പം പലതിനും പല എന്താ പറയണ്ടേ ടെക്നോളജി വളർന്ന ഈ സമയത്ത് പപ്പട നിർമ്മാണമോക്കെ പുറം നാട്ടിലൊക്കെ ചിലപ്പോൾ മെഷീനറീസായിരിക്കും ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഇവിടെ ചുറ്റു വട്ടത്ത് ഒക്കെ അവരൊക്കെ സ്വന്തം കൈകളാൽ തന്നെ കഷ്ടപ്പെട്ടിട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞ് തേനുണ്ട നിർമ്മാണം അത് ചെയ്യുന്നുണ്ട് പിന്നെ അരിയുണ്ട ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നവരുണ്ട് വീടുകളിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊക്കെ എന്താ പറയണ്ടേ നമുക്കൊരു ടൈം പാസും ആണ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ പറയാ ഒരു സാധ്യത കൂടിയ വരുമാനം ഉണ്ടാക്കാൻ സാധ്യത കൂടിയ നല്ല ക്വാളിറ്റിയിൽ സാധനങ്ങൾ നമ്മൾ അളവ് കുറച്ചിട്ട് ആയാലും ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാലും എല്ലാവരും രുചികരമായ സാധനം എന്നുള്ള നിലയ്ക്ക് അതൊക്കെ സ്വീകരിക്കും അപ്പം നമുക്ക് നല്ലൊരു സംരംഭകയായി തീരാനും പറ്റും എന്നതാണ് സത്യമാണത്